ഇപ്പോൾ നമ്മുടെ ഇന്ത്യയില് തന്നെ കേരളത്തില് മലബാർ തീരത്തോട് നമുക്ക് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം കോഴിക്കോടിൻ്റെ മറ്റൊരു പേരും കൂടിയുണ്ട് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാല് കോഴിക്കോടിന് പല ആൾക്കാരും പല രീതിയിലുള്ള പേരും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുറേ ആൾക്കാര് കാലിക്കറ്റ് എന്നും പറയാറുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്നാമത്തെ വലിയ നഗരം എന്നുള്ള ഒരു പ്രശസ്തിയും കൂടി കോഴിക്കോട് ജില്ലക്ക് കിട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ബ്രിട്ടീഷ് ഭരണ കാലത്ത് നമുക്ക് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു നമുക്ക് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയിലേയും തന്ന പുരാതന ഒരു തുറമുഖ നഗരമാണ് കോഴിക്കോട് അപ്പം അങ്ങനത്തെ ഒരു പേരു കേട്ട ഒരു നഗരം കൂടിയാണ് നമുക്ക് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പ്രാചീന കാലത്തും നമുക്ക് മധ്യ കാലഘട്ടങ്ങളിലും വ്യാപാരത്തിൻ്റെയും ഒരു ആസ്ഥാനമായിട്ട് വേണമെങ്കില് കോഴിക്കോടിൻ്റെ വേണമെങ്കിൽ പറയാം കോഴിക്കോട് തന്നെ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പം അറഗി അറബികൾ തുർക്കികൾ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ പേരിലൊക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരും പ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പം മലബാറ് ജില്ലയുടെ തലസ്ഥാനമായിരുന്നു പിന്നെ നമ്മുടെ സാമൂതിരിയുടെ കാലം ആയിരുന്നു സാമൂതിരി ആയിരുന്നു നമ്മുടെ കോഴിക്കോട് ഒക്കെ ഭരിച്ച് കൊണ്ടിരുന്നത്